അപ്പം നമുക്ക് ഇപ്പോൾ എന്താ പറയുക പഴയ സിനിമകൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചിത്രം അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾ അതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമകൾ പിന്നെ ഇഷ്ടമുള്ള നടനും നടിയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാം എല്ലാവരെയും ഇഷ്ടമാണ് ന്യൂ പുതിയതായിട്ട് വന്ന നടന്മാരും അതുപോലെ തന്നെ പുതുമുഖങ്ങൾ ആയിട്ട് വന്ന അവരൊക്കെ അഭിനയം നല്ലതാണ് അപ്പം അവരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നടിമാരെയും അങ്ങനെ തന്നെയാണ് പണ്ടുകാലത്ത് പണ്ടത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെയൊക്കെയാണ് ഇഷ്ടം മ് പിന്നെ ഗായകന്മാരിൽ ചിത്ര ചേച്ചിയെ ഇഷ്ടമാണ് അതുപോലെ തന്നെ സുജാത മേമിനെ ഇഷ്ടമാണ് അങ്ങനെ അവരെ അവരെയൊക്കെ അവരുടെയൊക്കെ പാട്ടുകൾ അടിപൊളിയാണ് അങ്ങനെ ഒരുപാട് ഇന്ന് അതൊന്നുമല്ല നല്ല പുതിയ നല്ല ഒരു ആശയം തരുന്ന സിനിമകളൊക്കെ ആണെങ്കിൽ കാണാൻ ഇഷ്ടമാണ് ഇപ്പോൾ ഫൈ കുറേ അടിയുള്ള വലിയ അടിയുള്ള സീൻ ഒന്നുമല്ല ഒരു ആകാംക്ഷ തരുന്ന സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കാണാൻ